എൻ്റെ ജോലിയെന്നു പറയുന്നത് ഞാനിവിടെ ഒരു കമ്പനിയിലെ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ എൻജിനീയറായി വർക്ക് ചെയ്യുകയാണ് എനിക്ക് ഞാൻ പഠിച്ച അതേ കോഴ്സിൻ്റെ തന്നെ ജോലിയാണ് എനിക്ക് ലഭിച്ചത് അതുകൊണ്ട്തന്നെ ഞാൻ വളരെ സന്തോഷവാനാണ് ഈ ജോലി തിരഞ്ഞെടുക്കാനുള്ള കാരണമെന്നു വെച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷം ലഭിക്കുന്നത് അവർ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടുന്ന ജോലി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അതേസമയത്ത് ഇഷ്ടപ്പെടാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അത് വളരെ സങ്കടകരമായ ഒരു കാര്യവുമാണ് മാത്രമല്ല അത് മടുക്കാനുള്ള കാര്യവും മടുക്കാനും വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട്തന്നെ ഇഷ്ടപ്പെട്ട ജോലി ആയതുകൊണ്ട് തന്നെ എനി അത് മാത്രമല്ല എനിക്ക് അതിനോട് കൂടുതൽ പഠിക്കാനും കൂടുതലായിട്ട് അറിയാനും കൂടുതൽ അറിവുകൾ നേടാനും താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ആണ് ഞാനീ ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തത് ഈയൊരു പണിക്ക് പോകാൻ തീരുമാനിച്ചതും അതുകൊണ്ടുതന്നെ ഞാൻ വളരെ സന്തോഷവാനാണ് ഈ ജോലിയിൽ എനിക്ക് എൻ്റെ ഈ ഉപജീവന മാർഗമായി ഞാൻ ഈ ജോലി കൊണ്ടുപോകുന്നതായിരിക്കും